ഉത്തരേന്ത്യയിൽ സാധാരണയായി സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് ഹിന്ദിയാണ് കൂടാ അതുകൂടാതെ പഞ്ചാബി ഉറുദു രാജസ്ഥാനി ബോജ്പുരി എന്നിവയും സംസാരിക്കാറുണ്ട് ദക്ഷിണേന്ത്യയിൽ കൂടുതലായി സംസാരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഒരു ഭാഷയില്ല അവരെല്ലാവരും എല്ലാവർക്കും തമിഴ് തെലുങ്കു കന്നട മലയാളം എന്നിവ കൂടി സംസാരിക്കാനുള്ള സംസാരിക്കാറുണ്ട് അവർ പിന്ന ഉത്തരേന്ത്യയിൽ കൂടുതലായി ഭക്ഷണം ഉണ്ടാക്കുന്നത് ഗോതമ്പ് കൊണ്ടുള്ള സം സംഭവങ്ങളാണ് ഭക്ഷണങ്ങളാണ് അതായത് ചപ്പാത്തി പിന്നെ അത് കൂടാതെ പനീർ അവര് ഒരു വലിയൊരു ഭക്ഷണത്തിൻ്റെ ഒരു ഘടകമാണ് പിന്നെ ദക്ഷിണേന്ത്യയിലാണെങ്കിൽ കൂടുതലായിട്ട് അരി ഭക്ഷണമാണ് അത് ദോശ ഇഡ്ഡലി സാമ്പാറ് എന്നിവയായിരിക്കും പിന്നെ നമ്മൾ കൂടുതൽ ഈ തേങ്ങ പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി മഞ്ഞള് ഇങ്ങനെ അങ്ങനത്തെ കൂടുതലായിട്ടും പുളി എന്നിവ കൂടുതലായിട്ട് ദക്ഷിണേന്ത്യയിലുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ഉത്തരേന്ത്യയിൽ ആണെങ്കിൽ കൂടുതലായി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് സാരിയും അതേപോലെ പെണ്ണുങ്ങൾ ആണെങ്കിൽ സാരി ആണെങ്കിലും പിന്നെ പുരുഷന്മാർ ആണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ സാരിയും പുരുഷന്മാരാണെങ്കിൽ കുർത്ത അങ്ങനത്തെ ആയിരിക്കും ഉപയോഗിക്കാറുള്ളത് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആണെങ്കിൽ കൂടുതലായിട്ടും അല്ല പൊതുവേ ഒരു സാരിയും പിന്നെ സ്ത്രീകൾ സാരിയും ഉപയോഗിക്കാറുണ്ട് പിന്നെ കുറെ തരത്തിലുള്ള സ്റ്റൈ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു

നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് ദീപാവലി ഹോളി അങ്ങനത്തെയാണ് കൂടുതലായിട്ട് അവര് വലിയ ഇതായിട്ട് നമ്മൾ കണക്കാക്കാറ് ദക്ഷിണേന്ത്യയിലാണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന ഉത്സവം എന്ന് പറയുന്നത് പൊങ്കൽ ഓണം അങ്ങനത്തെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലാണെങ്കിൽ കൂടുതലായിട്ട് കഥക് ഭരതനാട്യം അങ്ങനത്തെയാണ് നമ്മുടെ നൃത്തങ്ങളുള്ളത് കാ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് പിന്നെ ദക്ഷിണേന്ത്യയിൽ ആണെങ്കിൽ ഭരതനാട്യം കുച്ചിപ്പുടി അതൊക്കെയാണ് നമ്മൾ നൃത്തങ്ങളിൽ നമ്മള് വിത്യാസം എന്ന് പറയുന്നത്